കൽപന ചൗള സുനിത വില്യംസ് രാകേഷ് ശർമ്മ ഇവര് മൂന്ന് പേരും ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാര് ആണ് രാകേഷ് ശർമ്മ ആണ് ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഏകദേശം എട്ട് ദിവസത്തോളം ബഹിരാകാശത്ത് രാകേഷ് ശർമ്മ ഉണ്ടായിരുന്നു പിന്നെ കൽപ്പന ചൗള ഇന്ത്യയിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ഇന്ത്യക്കാരി ആണ് കൽപന ചൗള ആദ്യമായി ബഹിരാകാശത്തൂടെ നടന്ന ആദ്യ ഇന്ത്യക്കാരി ആണ് കൽപന ചൗള ഇത് കൽപന ചൗളയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയിൽ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി ആണ് ഭൂമിയിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് ആയിട്ട് ആണ് അവരുടെ വിമാന പേടകം പൊട്ടിത്തെറിച്ചും മരിക്കുന്നത് പിന്നെ സുനിത വില്യംസ് എന്ന് പറയുന്നത് സുനിത വില്യംസ് ബഹിരാകാശത്ത് കൂട നടന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആണ് സുനിത വില്യംസ് നാല് പ്രാവശ്യത്തോളം ബഹിരാകാശത്തൂടെ പോയിട്ട് ഉണ്ട് ബഹിരാകാശത്തേക്ക് യാത്ര പോയിട്ട് ഉണ്ട്